ആ ചേട്ടാ വരൂ നമസ്കാരം ആ ഉണ്ടല്ലോ നിങ്ങള് റേഞ്ച് എത്രയാണ് ഉദ്ദേശിക്കുന്നത് എത്രയാണ് ബഡ്ജറ്റ് എത്രയാണ് അതെ ഇതിപ്പോൾ നമുക്ക് സിംഗിൾ ആ അല്ലെ ക്വാളിറ്റി നമുക്ക് സിംഗിൾ കോട്ട് വരുന്നുണ്ട് ഡബിൾ കോട്ട് വരുന്നുണ്ട് ഇപ്പോൾ ഡബിൾ കോട്ടെന്ന് പറയുമ്പം നമ്മള് രണ്ട് മൂന്ന് ആൾക്കാർക്ക് കിടക്കാൻ പറ്റും സിംഗിൾ ആകുമ്പം ഒരാൾക്ക് അത്യാവശ്യം ഒരാൾക്ക് ഒര് ചെറിയ കുട്ടിക്ക് കൂടെ കിടക്കാൻ പറ്റും ആ ഓക്കെ ഡബിൾ കോട്ടിൽ ഇപ്പം നമ്മള് മരം ഏതെങ്കിലും നോക്കുന്നുണ്ടോ നല്ല അതായത് ക്വാളിറ്റി ഇല്ലാത്ത തേക്ക് ഈട്ടി അങ്ങനത്ത ഏതെങ്കിലും നോക്കണോ അതോ സാധാ ഏതെങ്കിലും മരം മതിയോ ആ തേക്കിൽ ആണെങ്കിൽ ഇപ്പോൾ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരുന്നത് ഒര് ഒര് കട്ടിലും ഒര് ചെറിയ ടേബിളും കൂടിട്ടുള്ള സെറ്റ് വരുന്നുണ്ട് ചെറിയ ഒര് ടേബിള് ഒര് ചെയറ് അങ്ങന മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരുന്ന സെറ്റ് ആണ് അത് വന്നിട്ട് ഇപ്പോൾ ഏഴ് തൊള്ളായിരം ആണ് വരുന്നത് ആ നമ്മള് ഹോം ഡെലിവറി ഉണ്ട് ആ മറ്റെ ബെഡ്ഡോട് കൂടി ആകുമ്പം വന്നിട്ട് പന്ത്രണ്ട് ഇരുന്നൂറിന് വരുന്നുണ്ട് ബെഡ്ഡോട് കൂടി ഉള്ള സെറ്റ് അതില് ഒര് ബെഡ്ഡ് വരും രണ്ട് തലയണ വരും ഒരു ചെറിയ വിരി വരും ഇത് അതിന് മുകളിലേക്ക് ഒര് ചെറിയ ഒര് വിരിയും കൂടെ വരും അതിന് വന്നിട്ട് പന്ത്രണ്ട് ഒരുന്നൂറ് ആണേ പിന്നെ നമ്മള ഡെലിവറി പത്ത് കിലോമീറ്ററിൻ്റ ഉള്ളിൽ ആണെങ്കിൽ നമുക്ക് ഡെലിവറി ചാർജ് ഇല്ല പത്ത് കിലോമീറ്ററിന് മേലെക്ക് വരണമെന്ന് പറഞ്ഞ് കഴിയുമ്പോൾ കിലോമീറ്ററിന് അത് നമ്മുടെ വാടക നിങ്ങള് കൊടുക്കേണ്ടി വരും എത്ര വണ്ടി വാടകയാണ് അത് നിങ്ങള് കൊടുക്കേണ്ടി വരും

അലമാര വരുന്നുണ്ട് അതും ഏത് മരത്തിൻ്റെ ആണ് വേണ്ടത് അത് ഇതുപോലെ തേക്ക് ഉണ്ട് ഈട്ടി ഉണ്ട് സാധാ മരങ്ങൾ ഉണ്ട് സാധാ മരത്തിൻ്റെ ആകുമ്പം റേറ്റ് കമ്മി ആയിരിക്കും പക്ഷെ അത് ഇപ്പം നമുക്ക് എത്ര കാലം നിക്കുമെന്ന് പറയാൻ പറ്റില്ല തേക്ക് ഈട്ടി ഒക്കെ നാലഞ്ച് അഞ്ച് പത്ത് പന്ത്രണ്ട് കൊല്ലം ഒക്കെ എന്തായാലും നിക്കും ആ തേക്കിൻ്റ വന്നിട്ട് ഇപ്പോൾ വലിയ അത് തന്നെ അഞ്ച് അടിക്ക് വന്നിട്ട് നമുക്ക് വെറൈറ്റി വരുന്നത് ഏഴ് അല്ല എട്ട് ഇരുന്നൂറ് വരുന്നുണ്ട് ആറ് അടിക്ക് ആകുമ്പോൾ നമ്മള് വന്നിട്ട് അതില് റാക്ക് കൂടുതൽ ആയിരിക്കും അതിന് വന്നിട്ട് പത്തേ നാനൂറ് സംതിംഗ് വരുന്നുണ്ട് അതില് നമുക്ക് ഡിസ്കൗണ്ട് ഇട്ട് തരാം ഏതാ എടുക്കണ്ടത്

ആ ഓക്കെ മറ്റെ നമുക്ക് കട്ടിലിൻ്റ സെറ്റ് എടുക്കാം അത് ആകുമ്പം നിങ്ങൾക്ക് രണ്ടും കിട്ടും ടേബിളും കട്ടിലും ഒരുമിച്ച് വരിക ആ സെറ്റായിട്ട് വരുമ്പം അത് എടുക്കാം പിന്നെ ഈ അലമാര ഇല്ലെ വേറെ ഡൈനിംഗ് ടേബിളോ അല്ലെങ്കിൽ ടീപ്പോയ് അങ്ങനത്തെ എന്തെങ്കിലും വേണോ ആ ടീപ്പോയ് ഇപ്പം നമുക്ക് വന്നിട്ട് ഒര് ചെറിയ ടീപ്പോയ് ആണ് അതോ ഇങ്ങനെ ആണ് നമ്മക്ക് ഈ സോഫാ സെറ്റിൻ്റ ആ ടൈപ്പ് മോഡൽ ആയിട്ട് വേണോ അതോ നിങ്ങൾക്ക് ഒര് ടീപ്പോയ് ഒറ്റയ്ക്ക് മതിയോ ആ സോഫാ സെറ്റ് വന്നിട്ട് നമുക്ക് ഇപ്പോൾ റേഞ്ച് ഒര് സോഫാ സെറ്റിന് രണ്ട് ചെറിയ ചെയറും പിന്ന ഒര് ടേബിളും കൂടെ വന്നിട്ട് നമ്മള് നാലായിരത്തി അഞ്ഞൂറിനാണ് നമ്മള് കൊടുക്കുന്നത് അപ്പോൾ അത് എടുത്ത് ആ നമുക്ക് ഇത് മൊത്തം എടുക്കുവാണെന്ന് പറഞ്ഞാൽ നമുക്ക് ബില്ല് ഡിസ്കൗണ്ട് വന്ന് ഡിസ്കൗണ്ട് ആക്കിത്തെരാം

ആ ആ ഓക്കെ അപ്പം ഞാന് ഈ ഇത് നിങ്ങൾ ഇവിടുന്ന് പേയ്മെൻറ്റ് ഓൺലൈൻ ആണോ അതോ ക്യാഷ് ഓൺ ഡെലിവറിയാ അപ്പം ക്യാഷ് കൈയ്യില് വെച്ചിട്ട് ഉണ്ടോ എങ്ങനെ ആണ് ഓൺലൈനാ പേയ്മെൻറ്റ് എങ്ങനെയാണ് ആ ഓക്കെ അപ്പം ഞാൻ അവിടെ താഴത്ത് പോയി കയിഞ്ഞാൽ ക്യുആർ കോഡ് സ്കാനർ ഉണ്ട് നമ്മൾ അത് വണ്ടി അഡ്രസ്സ് ഇവിടെ പത്ത് കിലോമീറ്റർ ഉള്ളിൽ തന്നെ ആണോ വീട് ആ ഓക്കെ അപ്പം ആ അഡ്രസ്സും കൂടെ ഒന്ന് അവിടെ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളെ എന്നിട്ട് അവിടെ ചെന്നിട്ട് ഒന്ന് വിളിച്ചാൽ മതി ആ ലൊക്കേഷൻ ഒന്ന് അയച്ച് തന്നാൽ നമ്മള് നേരെ വണ്ടി വിടാം അല്ലെങ്കിൽ നിങ്ങള് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണമെന്ന് പറയുമ്പം നമ്മള് സാധനങ്ങൾ ഒക്കെ ആയിട്ട് നമുക്ക് ഒരുമിച്ച് പോകണമെങ്കിൽ അങ്ങനെ മതി ഇല്ലെങ്കിൽ അവിടെ പോയിട്ട് ലൊക്കേഷൻ അയച്ച് തന്നാൽ നമ്മള് നേരെ അവിടെ എത്തിച്ചേരാം ആ ഓക്കെ ഏട്ടാ താങ്ക്യൂ